ഹലോ ഇതു പേരൂര്കട ഇലക്ട്രിസിറ്റി ബോഡാണോ ഞാനെ എന്റെ ബില്ല് വേറൊരാളെ കൊണ്ട് ഗൂഗിള് പേ ചെയ്യിപ്പിച്ചായിരുന്നെ അപ്പോൾ എനിക്കതിന്റെ അതിന്റെ നോക്കാന് ടെക്നിക്കലി എനിക്കറിയത്തില്ല അപ്പോൾ എന്റെ എന്റെ ഇതിൽ ഗൂഗിള് പേ ഇല്ല എന്റെ അക്കൗണ്ടിൽ അപ്പോൾ അതുകാരണം ഞാന് വേറൊരാളെ കൊണ്ടു ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതു കറക്റ്റ് അവിടെ ബില്ല് പാസായോയൊന്ന് പറ ഒന്നു പ അറിയാമോ എന്റെ നമ്പർ ഇരുപത്തെട്ട് അൻപത്തഞ്ച് നാൽപ്പത്തി നാലാണേ അപ്പോൾ അതൊന്നു നോക്കിയിട്ട് പറയുമോ